ഞങ്ങളുടെ നാട്ടിൽ കറ കാലാവസ്ഥ മാറുന്നതിലൂടെ ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട് അതിനെ ഞങ്ങൾ പ്രതിരോധിക്കുന്നത് കാലാവസ്ഥ മാറുന്നതിന് മുന്നേ തന്നെ മാറുന്നത് കാണുമ്പോൾ തന്നെ പ്രതിരോധ മരുന്നുകൾ എടുത്തും പിന്നെ ഒരുപാട് ഇപ്പോൾ മഴക്കാലത്താണെങ്കിൽ മഴ നനയാൻ പോവാതെ തണുപ്പ് കൊൾ കൊള്ളാൻ പോവാതെയും അകത്ത് ഇരുന്നുമാണ് ഞങ്ങളത് പ്രിവെൻറ് ചെയ്യുന്നത് ഇപ്പം വേനൽക്കാലത്ത് ആണെങ്കിൽ സൂര്യാഘാതം ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്രയും പ്രൊട്ടക്ഷൻ അതായത് പുറത്തോട്ട് പോവുമ്പം സൺസ്ക്രീൻ അല്ലെങ്കിൽ ഹെൽമറ്റ് വെച്ച് പുറത്തോട്ട് പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ പ്രിവെൻറ് ചെയ്യുന്നത് അഥവാ അസുഖം വന്നാലും അന്നേരം തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അന് അപ്പോൾ തന്നെ മരുന്ന് വാങ്ങി യൂസ് ചെയ്ത് അസുഖം മാറിയിട്ടേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുള്ളൂ സാമൂഹിക അകലം പാലിച്ച് ആയിരിക്കും അസുഖം ഉള്ള സമയത്ത് നമ്മൾ സമൂഹവുമായിട്ട് ഇടപെടുന്നത്